സംസ്കൃതവും ഇംഗ്ലീഷുമൊന്നും മലയാളത്തെ സ്വാധീനിച്ചു എനു പറയാൻ പറ്റില്ല മറിച്ച് മലയാളികൾ ഇംഗ്ലീഷിലേക്ക് മാറി അല്ലെങ്കിൽ സാംസ്കാരികമായ ഒരു പൈതൃകം സംസ്കൃതത്തിന്റെതായതുകൊണ്ട് സംസ്കൃതം കൂടി പഠിപ്പിക്കുന്നത് സ്കൂളിൽ പഠിപ്പിക്കുന്നതു കൊണ്ടും അത്യാവശ്യം എല്ലാവരും അങ്ങനെ സംസ്കൃതത്തിലേക്ക് ഒരു ചുവടുവെപ്പു നടത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറിച്ച് ഇംഗ്ലീഷിലേക്ക് മാറിയതിന്റെ കാരണമെന്താണ് ജോലിക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനു വേണ്ടിയും അവിടെ ചെന്നു നിന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് മലയാളിയെ അല്ലെങ്കിൽ മലയാള ഭാഷ ഇംഗ്ലീഷിനെ ആശ്ലേഷിച്ചത് അല്ലാതെ മലയാളഭാഷയെ സംസ്കൃതമോ ഇംഗ്ലീഷോ ആശ്ലേഷിച്ചു എന്നു പറയാൻ പറ്റില്ല മലയാള ഭാഷ മലയാളിക്ക് പോലും വേണ്ടാത്ത ഈ കാലഘട്ടത്തിൽ സംസ്കൃതക്കാർക്കോ ഇംഗ്ലീഷുകാർക്കോ എന്തിനാണ് സ്വാധീനിക്കാണ്ടിരിക്കാൻ കാര്യം എന്താ